ഓക്കെ ആ അതേ പറഞ്ഞോ ആ എനിക്കറിയാം ജോൺൻറ്റെ കാര്യം അവൻറ്റെ ക്ലാസ്റൂം ഇച്ചിരി ആ വഷളാ അപ്പോൾ അവൻറ്റെ ബിഹേവിയറ് നോക്ക് നിങ്ങൾ ആദ്യം ടീച്റ് ക്ലാസ്ല് പഠിപ്പിക്കുന്ന ഇടയ്ക്ക് അവൻ കൂടുതൽ സംസാരിക്കുന്നുണ്ട് അതൊന്ന് കുറയ്ക്കാൻ പറയണം പിന്നെ അവൻറ്റെ അവൻ പഠിക്കുന്നുണ്ട് ഗ്രേഡ്സ്സ് കുറവാ എനിക്ക് കാണാം ആൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഇച്ചിരി ചില ഏര്യാസ്സ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വേണം ആ ആ ആക്ച്ലി സാർ ആ അപ്പോൾ നമ്മൾ സ്കൂല് ഇങ്ങനെ ഡിസ്ക്കസ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ക്ലാസ്സസ്സിൻറ്റെ കാര്യം അത് ഡിസ്കസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻഫോം ചെയ്യാം മ്മ് ഞാനിപ്പം മാത്സ്സ് പഠിപ്പിക്കുന്നത് ആ അതേയതേ മാത്സ്ല് ഞാൻ പറഞ്ഞ നേരത്തേ പറഞ്ഞപോലെ ഇച്ചിരി ഭയങ്കര ടോക്കെറ്റീവാ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇന്ന് പഠിപ്പിക്കുന്ന അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങൾ കുട്ടിയുടെ അടുത്ത് പറയണം ഇച്ചിരികൂടെ ശ്രദ്ധവേണം ക്ലാസ്ല് ഐ മീൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്കിങ്ങനെ സംസാരിക്കും വേറെ കുട്ടി കുട്ടികളെ അടുത്ത് പഷേ നല്ല ബുദ്ധിയുള്ളൊരു കുട്ടിയാ അപ്പോൾ പഠിച്ചാൽ നല്ല മാർക്സ്സ് കിട്ടും

എന്താ എന്താ ഇതിനിയും റിപ്പീറ്റ് ചെയ്യുമോ ഹാ അങ്ങ് അതെ ഒരു സെമസ്റ്ററ് കഴിഞ്ഞിട്ട് ആണ് പരീക്ഷ അല്ല ചിലപ്പം ഇങ്ങനെ ചെറിയ ചെറിയ എക്സാംസ്സ് ചിലപ്പം ഉണ്ട് ഇങ്ങനെ സപ്രൈസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻറ്റേണൽസ് വേണ്ടിയൊരു ടെസ്റ്റ് ചിലപ്പോൾ ഉണ്ടാവും ആ മ്മ് ആ ആ ജോൺൻറ്റെ പോലെ വേറേ പിള്ളേരുണ്ട് അത് കൂടുതലും അവൻറ്റെ ഫ്രെണ്ട്സ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ കൂടുതൽ കൂടുതൽ അവർ കൂടെ ഇൻറ്റെറാക്റ്റ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് വേണമെങ്കിൽ എൻറ്റെ ക്ലാസ്സിനിടയ്ക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാനിവരെ ഇരുത്തിപ്പിക്കാം പിന്നെ ഞാൻ നോക്കിച്ചെയ്യാം ഉം ഞാൻ അത് ഞാനതെല്ലാം നോക്കിക്കോ ഞാൻ അനലൈസ്സ് ചെയ്യാം കുഴപ്പം ഇല്ല എന്നാൽ ശരി ഓക്കെ ബൈ